ഇപ്പം കല്പന ചൗളയും സുനിൽ വിൽസ്യം രാജേഷ് ശർമ്മ എന്നിവരെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ അറിയാവുന്നത് കല്പന ചൗളയെ കുറിച്ചാണ് ബഹിരാകാശ സഞ്ചാരിയായിരുന്നു കല്പന ചൗള തൻറെ ചെറുപ്രായത്തിൽ തന്നെ ബഹിരാകാശത്ത് പോകാനുള്ള ആഗ്രഹം സഫലമാക്കിയ വ്യക്തിയാണ് ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുള്ള തടസ്സം കാരണം ആണ് പുള്ളിക്കാരി അവിടെ ചെന്നപ്പോഴത്തേക്കും ലാൻഡ് ചെയ്യുന്നു ആ സമയത്താണ് ആക്സിഡൻറ് ഉണ്ടായത് അങ്ങനെ പക്ഷേ ഇന്ത്യയ്ക്ക് വേണ്ടി ഒത്തിരി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ അഭിമാനമായി മാറിയത് ഒരു നല്ലൊരു കാര്യത്തിനുവേണ്ടി പോയപ്പോഴത്തേക്ക് തടസ്സങ്ങൾ മൂലം അദ്ദേഹത്തിന്റെ ആ സ്ത്രീയുടെ ജീവൻ വെടിയേണ്ടി വന്നു